ഞങ്ങളുടെ പ്രദേശത്തെ പ്രമുഖ മാസിക ഈ മലയാള മനോരമ പത്രത്തിൻ്റെ ഒരു എഡിഷനായിരുന്നു മലയാള മനോരമ മനോരമ മലയാള മനോരമ നോവൽസ് ഒരുപാട് നോവലുകളുണ്ടായിരുന്നു അതിങ്ങനെ അവർ ഓരോ സീരീസ് ആയിട്ട് ഇങ്ങനെ പ്രസിദ്ധീകരിക്കുമായിരുന്നു അതുപോലെത്തന്നെ അതിന് വേറെ ബാലരമ ഒരു പ്രസിദ്ധീകരണമായിരുന്നു അതിൻ്റെ കുട്ടികൾക്കൊക്കെ ഭയങ്കര താല്പര്യമുള്ള പോലെ കഥകൾ ചെറുകഥകൾ ചിത്രകഥകൾ അതുപോലെത്തന്നെ കാർട്ടൂണുകൾ ഒക്കെ ഉണ്ടായിരുന്നു വായിക്കാനായിട്ട് അതുപോലെത്തന്നെ മംഗളം ആ അങ്ങനെ മനോരമ മലയാള മനോരമ അത് എല്ലാ വീടുകളിലുംതന്നെ ഉണ്ടായിരുന്നു അപ്പം വായിക്കാനും നമുക്ക് വീണ്ടും വായിക്കാനായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടാകുമായിരുന്നു അത് അത് എടുത്ത അടുത്ത അടുത്ത മാസത്തിൽ നമ്മളതിനെ നോക്കി അതിന് വരുന്നതിനെ കാത്തിരിക്കുമായിരുന്നു അങ്ങനെ അതുപോലെ ബാലരമയാണെങ്കിലും കുട്ടികളൊക്കെ വളരെ കൗതുകത്തോടെ കാത്തിരിക്കുന്നയൊരു മാസികയായിരുന്നു ബാലരമ അതിനകത്ത് കുട്ടികളെ ആകർഷിക്കുന്ന കളറിങ്ങായിട്ടും ചിത്രകഥയായിട്ടും അങ്ങനെ ഒരുപാട് കാര്യ ഇങ്ങനെ കുട്ടികൾ കാത്തിരുന്ന് അന്നത്തെ കാലത്ത് ഇങ്ങനെ ടി വി ഫോൺ അങ്ങനെ സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നതുകൊണ്ടാവാം കുട്ടികളത് കാത്തിരുന്ന് ഓരോ മാസം കറക്റ്റ് അത് കൈയിൽ കിട്ടുമ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു ഈ മനോരമ മാസികയാണെങ്കിലും ബാലരമയാണെങ്കിലും അത് അങ്ങനെ വളരെയധികം ആളുകളെ ആകർഷിച്ചുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ വായിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരത് കാത്ത് കാത്ത് ഇരിക്കുമായിരുന്നു നമുക്ക് വീണ്ടും അത് ഓരോന്നിനെപ്പറ്റി വായിക്കാനും ആടുത്ത കഥ അയിൻ്റെ അടുത്ത കഥകൾ അയിൻ്റെ ബാലൻസ് എന്നാ എന്നറിയാനും ബാക്കിയെന്നാ എന്നറിയാനൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് വന്ന് മാസികകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു കുട്ടികളും മുതിർന്നവരും എല്ലാം ബാലരമയാണെങ്കിലും കുട്ടികൾക്കുള്ള പ്രസിദ്ധീകരണമാണ് എന്ന എന്നിരുന്നാൽ പോലും അത് വലിയവരും വളരെ താല്പര്യത്തോടെ അത് വായിക്കുമായിരുന്നു കുട്ടികൾക്കും കുട്ടി വളരെ താൽപര്യത്തോടെ മുതിർന്നവരും അത് കാത്തിരിക്കുമായിരുന്നു അതിനകത്തുള്ള കഥകളും ചിത്രകഥകളൊക്കെ വളരെ ആകർഷകമായിരുന്നു അത് ഇപ്പം ഒരുപാട് മാസികകളൊക്കെ ഉണ്ട് എങ്കിലും ആ പഴയ ആ മലയാള മനോരമയുടെയും ബാലരമയുടെയും ഒക്കെ ഒരു ആ സ്റ്റാൻഡേർഡിൽ ഇപ്പോൾ ഉണ്ടോ എന്ന് അറിയത്തില്ല ആൾക്കാർക്ക് വായിക്കാനുള്ള താല്പര്യം കുറഞ്ഞു വരുവാണല്ലോ അപ്പം നേരത്തെ ഉണ്ടായിരുന്നത് മലയാള മനോരമ എന്ന മാസികയായിരുന്നു അപ്പം അതിൻ്റെ വേറൊരു പ്രസ്നം വനിത എന്ന പ്രസിദ്ധീകരണം അങ്ങനെ ഉണ്ടായിരുന്നു ബാലരമ മനോരമ മലയാള മനോരമ മാസിക ഇതൊക്കെയായിരുന്നു കൗതുകത്തോടെ ആകാംക്ഷയോടെ കാത്തിരുന്നത് ഇന്ന് പിന്നെ വായിക്കാനുള്ള ഒരു കൗതുകം അതുപോലൊരു ആകാംക്ഷയെ മനുഷ്യനിൽ ഉണ്ടാക്കുമായിരുന്നു ആളുകൾ വ്യക്തികളിലത് ഉണ്ടാക്കുമായിരുന്നു അങ്ങനെ എല്ലാവർക്കും വായനയിലൂടെയാണ് അന്നൊക്കെ കൂടുതൽ സമയം നമ്മുടെ സമയങ്ങളൊക്കെ നമ്മൾ ചിലവാക്കിയിരുന്നതും അങ്ങനെ നമ്മുടെ എൻ്റർടൈൻമെൻ്റും അതുപോലെത്തന്നെ നമ്മുടെ സമയം പോകുന്ന കാര്യം സമയം കളഞ്ഞിരുന്നതും ഒരു ഹോബിയൊക്കെ എന്നൊക്കെ ഈ മാസികകളായിരുന്നു അത് വായിക്കുകയായിരുന്നു ഇപ്പം വായിക്കാനുള്ള താല്പര്യവും സമയമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാസികകളൊന്നും കാണാറില്ല ശ്രദ്ധിക്കാറില്ല കുട്ടികളാണെങ്കിലും വായിക്കാനുള്ളൊരു താല്പര്യം കുഞ്ഞുങ്ങളിലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു പണ്ടൊക്കെ ബാലരമയ്ക്ക് വേണ്ടിയിട്ടൊക്കെ കാത്തിരുന്ന ഒരു കുട്ടിക്കാലം